എൻ്റെ പ്രദേശത്ത് ഭൂരിഭാഗം ആൾക്കാരും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഡാറ്റ പ്ലാൻ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ജി ബി പെർ ഡെ ലഭിക്കുന്ന ഡാറ്റ പ്ലാൻ ആയിരിക്കും കാരണം അതുമാത്രമേ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ഒരു ദിവസം എന്നുള്ള രീതിയിൽ നിലവിൽ പോവുന്നുളളൂ പണ്ടൊക്കെയെന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് രൂപയുടെ ഒരു നൂറ് എം ബി ഡാറ്റ പാക്ക് കിട്ടുന്നൊരു സ്ക്രാച്ച് കൂപ്പൺ കിട്ടും ഇരുപത്തൊമ്പത് രൂപക്ക് അത് വച്ച് മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് പക്ഷേ ഇന്നതല്ല ഇന്ന് നമുക്ക് ഒരു ഇരുനൂറു രൂപ ഇരുനൂറ്റമ്പത് രൂപ കൊടുത്താൽ തന്നെ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഒന്നര ജി ബി ഡാറ്റ ആണ് നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം വച്ച് ഒന്നര ജിബി ഡാറ്റ അത് തന്നെയാണ് എല്ലാവരും ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് രണ്ട് സിമ്മുണ്ട് അതില് ഒന്നിൽ ഞാൻ കോൾ മാത്രം അല്ലെങ്കിൽ ഒരു സിമ്മിൽ വൺ ജി ബി പെർ മന്ത് ചെയ്ത് പ്ലസ് കോൾ അൺലിമിറ്റഡ് കോൾ അത് ഞാൻ ചെയ്യും പിന്നെ ബാക്കിയുള്ളതിൽ മറ്റേ എൻ്റെ രണ്ടാമത്തെ സിമ്മിൽ ഞാൻ വൺ പോയിന്റ് ഫൈവ് ജി ബി പെർ ഡേ അതുപോലും എനിക്ക് തികയാത്ത അവസ്ഥ വരാറുണ്ട് പലപ്പോഴും അപ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും അത് തന്നെയാണ് ലാഭകരമായിട്ട് തോന്നുന്നത് പിന്നെ ഇന്ത്യയിലെ ഡാറ്റ പ്ലാനിൻ്റെ കാര്യം പറയാണെങ്കിൽ നമ്മുടെ ഡാറ്റ പ്ലാൻ ഭയങ്കര ചീപ്പാണ് കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഭയങ്കര സ്ലോയും കൂടെയാണ് അതും പറയേണ്ടതുണ്ട് ഇത്രമാത്രമാണ് എൻ്റെ വീട്ടിലും ഉപയോഗിക്കുന്ന ഡാറ്റ പ്ലാൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എല്ലാവർക്കും ഫോൺ ഉണ്ട് അച്ഛൻ അമ്മ ഏട്ടൻ എല്ലാവർക്കും ഫോണുണ്ട് അവരെല്ലാവരും ഡാറ്റ യൂസ് ചെയ്യുന്നവരാണ് ഉപയോഗിക്കുന്ന ഡാറ്റ പ്ലാൻ വൺ ജി ബി പെർ മന്ത് ഡേയോ അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ജി ബി പെർ ഡേയോ ഇത് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ റേഞ്ചിലുള്ള ഡാറ്റ പ്ലാനുകളാണ് യൂസ് ചെയ്യുന്നത്